ഈ ടെക്നോളജികളുടെ വളർച്ചയുടെകൂടെ ചെറിയ ചെറുകിട ചെറുകിട സംരംഭങ്ങൾ എല്ലാം തന്നെ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ട് അതായത് ഇപ്പോള് നമ്മള് നേരത്തെ നമുക്കൊരു ചെറിയ കട അല്ലെങ്കിൽ ചെറിയൊരു സ്ഥാപനമുണ്ടായിരുന്നെങ്കിൽ അത് മറ്റു സ്ഥലത്തുള്ള ആൾക്കാർക്കതിനെക്കുറിച്ചുള്ള വിവരം കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യില്നിന്ന് സാധനങ്ങൾ മേടിക്കാനുള്ള അവസരം വളരെ കുറവായിരുന്നു പക്ഷെ ഈ ടെക്നോളജി വളരുന്നതിന്റെ കൂടെത്തന്നെ നമ്മളുടെ ബിസിനസ് ചെറിയൊരിത് ചെറിയ ബിസിനസ്സാണെങ്കിലും വലിയ ബിസിനസ്സാണെങ്കിലും നമുക്ക് ഓൺലൈനെന്നു പറഞ്ഞൊരു മാധ്യമത്തോടുകൂടി നമുക്കു പ്രസിദ്ധീകരിച്ച് വളരെയധികം ആൾക്കാരിലോട്ട് നമ്മള് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുണ്ട് ചെറുകിട ബിസിനസ്സിനെ സംബന്ധിച്ചെന്നു പറഞ്ഞാല് അടുത്തുള്ള ആൾക്കാര് മാത്രമായിരുന്നു നേരത്തെ അവരുടെ അവരുടെ കസ്റ്റമേഴ്സെന്നു പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ ടെക്നോളജികളുടെ വളർച്ച കാരണം ദൂരെയുള്ള വളരെ ദൂരെയുള്ള ആൾക്കാർക്കും നമ്മൾ നമ്മുടെ ബിസിനസ് ഓൺലൈനിൽ രജിസ്റ്റര് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്തുനിന്നു സാധനങ്ങൾ മേടിക്കാം അതുപോലെന്നെ നമ്മുടെ ഉപയോക്തായി അവർക്ക് മാറാനുള്ളൊരു അവസരവും കിട്ടും അതുവച്ചു നോക്കുകയാണെങ്കിൽ ഈ ടെക്നോളജി വളർന്നതുകൊണ്ട് ചെറുകിട സംരംഭങ്ങൾക്കെല്ലാം തന്നെ വലിയ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ കാശ് മേടിക്കുന്ന സ്ഥലത്താണേലും നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ അതായത് യു പി യു പി പേമെൻറ്റ് മോഡൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ കച്ചവടം കൂടുതല് നടക്കാനുള്ള സാധ്യതകളാണ് കാരണം ആൾക്കാരിപ്പോള് കയ്യിൽ കാശ് കൊണ്ടുനടക്കുന്നതിനെക്കാട്ടില് കൂടുതൽ അവര് ഡിജിറ്റലായിട്ട് മൊബൈലിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽത്തന്നെ ക്യാഷ് വയ്ക്കുന്ന മൊബൈലിൻ്റെ സഹായത്തോടുകൂടി അവര് യു പി ഐ ട്രാൻസാക്ഷൻ നടത്തി സാധനങ്ങൾ മേടിക്കുകയാണ് ഇപ്പോഴത്തെയൊരു പതിവ് അതുകാരണംതന്നെ ഈ ടെക്നോളജി വളരുന്നതിന്റെകൂടെ കടകള് ചെറുകിട വ്യവസായങ്ങളും അതെല്ലാമൊന്ന് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കും നല്ല നേട്ടങ്ങൾ കൊയ്യാന് പറ്റും